ഞാൻ എൻ്റെ സഹോദരിയെ നീന്തൽ പഠിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഞാൻ നീന്തൽ പഠിക്കുന്നതിനു മുൻപ് പിന്നേ ഒരു മൈസൂരൊരു ജിആർഎസ് പാർക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയസമയത്ത് ഒരു കളിക്കുന്ന ഒരു ഗെയിം കളിക്കുന്നൊരു സ ഒരു വെള്ളത്തിൻ്റെ ഇതിൽ കയറിയിട്ട് ഒരു ഒരു പൂളിലേക്ക് വന്ന് ചാടുന്നൊരു പിന്നേ ഒരു കളിക്കുന്നൊരു സംഭവമായിരുന്നു അപ്പോൾ അതിലൂടെ വന്നപ്പോൾ ഞാൻ പിന്നേ പെട്ടെന്നു തന്നേ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പോൾ ഒന്നും എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു പേടിവന്നിരുന്നു വെള്ളത്തിലൊക്കേ ഇറങ്ങാനും പിന്നേ കളിക്കാനുമൊക്കേ പിന്നേ നീന്തൽ പഠിച്ചതിനുശേഷം വലിയ പേടിയൊന്നുമില്ലാ അപ്പോൾ അത് ആ മുങ്ങിപ്പോയതു കൊണ്ടാണ് എനിക്ക് നീന്തൽ പഠിക്കാൻ തന്നെ ഒരു ഒരു ഇഷ്ടം വന്നത് എനിക്കതു വരേ വെള്ളത്തിലിറങ്ങാനൊക്കേ പേടിയായിരുന്നു ഇപ്പോൾ എനിക്ക് പേടിയില്ല എനക്ക് ഇഷ്ടമുള്ളവർ ആർക്കാണോ ഇഷ്ടം അവരെ പഠിപ്പിക്കാനും എനിക്കിഷ്ടമാണ് അതു കൊണ്ട് എൻ്റെ സഹോദരിയെയൊക്കേ ഞാൻ നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്